വയനാട് ജില്ലയെന്നു പറഞ്ഞാൽ തന്നെ അതായത് ഒരു കാടാൽ ചുറ്റപ്പെട്ടൊരു ജില്ലയാണ് വയനാട് ജില്ല ആദ്യകാലങ്ങളിലൊക്കെ ആദിവാസികൾ മാത്രമാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്നത് പിന്നെപ്പിന്നെ അതായത് ബ്രിട്ടീഷുകാരാണ് വയനാട് ജില്ല ഭരിച്ചുകൊണ്ടിരുന്നത് പഴശ്ശിരാജാവാണ് അവരുടെ കയ്യിൽ നിന്നും പിന്നെ വയനാട് ജില്ല ഇതാക്കിയത് യുദ്ധം ചെയ്തിട്ടാണ് നമുക്ക് നേടിത്തന്നത് പഴശ്ശിരാജാവിൻ്റെ കുടീരം നമുക്ക് ഇവിടെ മാനന്തവാടി ഉണ്ട് അതുപോലെ പുൽപ്പള്ളിയിലുണ്ട് പഴശ്ശിരാജാവിൻ്റെ ഒരു പ്രതിമ തന്നെ പുൽപ്പള്ളിയിലുണ്ട് പിന്നെ ആദിവാസികളാണ് കൂടുതലും ഇങ്ങനെ കുടിയേറി കുറിയേറി കുടിയേറി വന്നിട്ടാണ് നമ്മൾ അതായത് എല്ലാ ആൾക്കാരും ഇവിടെ താമസിച്ചു തുടങ്ങിയത് എന്നു വച്ചാൽ ഇവിടുത്തെ ചരിത്ര വ്യക്തികളെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴശ്ശിരാജാവ് തന്നെയാണ് പഴശ്ശിരാജ ആണ് ഇവിടുത്തെ അതായതു നമുക്ക് ബ്രിട്ടീഷ്കാരിൽ നിന്ന് ഇതൊക്കെ നേടിത്തന്നത് ഇപ്പം അതുകൊണ്ടാണ് ഇപ്പം എല്ലാവർക്കും നമുക്ക് അതായത് വയനാട് ജില്ലയിൽ എല്ലാവർക്കും ഇപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കാനും എല്ലാം സാധിക്കുന്നത്